ഹലോ എനിക്ക് ഒരു അ എനിക്കൊരു ലോൺ വേണ്ടിയിട്ടായിരുന്നു അതെ പിന്നെ എനിക്ക് എനിക്ക് ഒരു കോഴീഫാമിൻ്റെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു

ആദ്യമായിട്ട് ഞാൻ നടത്തുന്നതാണ് അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല അതൊക്കെ അ അപ്ലൈ ചെയ്തിരുന്നു

അപ്പോൾ പലിശയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക എത്ര ശതമാനം പലിശ വരും

അ അ മാസം അതോ വർഷത്തേക്കാണോ ഇത് പലിശ വരുന്നത്

ഓക്കേ ഓക്കേ ഞാൻ പഞ്ചായത്ത് ഏരിയ ഓക്കേ ഓക്കേ താങ്ക്യൂ